ആ ഞാന് ആറു മാസം മുന്നേ ആ ഞാന് നിങ്ങളുടെ കടയില്നിന്നൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചായിരുന്നു അപ്പോള് എച്ച് പി ഡെയാണു വാങ്ങിച്ചത് എച്ച് പിയുടെ ആ എച്ച് പിയുടെ ആ മോഡലാണ് ഞാൻ വാങ്ങിച്ചത് ആ അപ്പോള് അതിനകത്ത് എച്ച് പിയുടെ അത് ഞാൻ ഐ ത്രീയാണു വാങ്ങിച്ചത് ഐ ത്രീ ഞാൻ അന്ന് മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു വാങ്ങിച്ചതാണ് ഇപ്പോള് ഞാന് ഇപ്പോള് ഞാന് ഇതാ ഞാൻ എടുത്തത് ഏകദേശം ആറാം മാസമാണെന്നു തോന്നുന്നു അതെ അതെയതെയതെ അതെ ജൂണില് ആ ജൂണിലാണ് എടുത്തത് ജൂണില് ഒരു അഞ്ചാം തീയതി ആ അതെ ആ അതെ അതെ അതെ അതെ അതെതെ ആ ആ അതെ അതെ അതെ ആ ഓക്കെ ആ അതിനകത്ത് എനിക്ക് ലാപ്ടോപ്പിനകത്തു ഞാനപ്പോള് ഇത് നെറ്റ്വർക്ക് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ഹാങ്ങാവുകയാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്നറിയത്തില്ല അപ്പോള് ഞാന് അത്രയും രൂപ കൊടുത്തു വാങ്ങിച്ചിട്ട് എനിക്കു വലിയ വിഷമമുണ്ട് ഇപ്പോള് ഞാന് അത്രയും പ്രതീക്ഷയോടെ വാങ്ങിച്ച സാധനമാണല്ലോ അപ്പോള് നമുക്ക് അതിന്റേതായ വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇല്ല ഇല്ല ഇല്ല അല്ല ഞാനാൻറ്ററിവൈറസൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ഞാന് എന്തോ ഞാന് ലാസ്റ്റ് കണക്ട് ചെയ്ത് എൻ്റെ ഫോണുമായിട്ട് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളു അല്ലാതെ അങ്ങനെ കണക്ഷനൊന്നും ഇല്ലായിരുന്നു ഇല്ലയില്ല പെൻഡ്രൈവൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പെൻഡ്രൈവൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്യുക അല്ല യൂസ് ചെയ്തിട്ടില്ല ലാസ്റ്റ് ഇതു തന്നെ ഞാനെന്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തു ഫോണ് വഴി അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ അല്ല ഞാനന്ന് ഗെയിമിംഗ് ഓ അല്ല ഞാനന്ന് ഗെയിമിംഗ് എല്ലാം കൂടെ നോക്കിയാണ് എടുത്തത് അപ്പോള് എന്നിട്ട് കൂടെ നമുക്ക് കയ്യില്നിന്നു പോയപ്പോള് നമുക്ക് അത്ര വിഷമമുണ്ടായി അപ്പോള് ആ അല്ല അല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഞാന് ഇല്ല ഇടയ്ക്കൊരു അപ്ഡേഷൻ കഴിഞ്ഞത് ഒരു അപ്ഡേഷൻ കഴിഞ്ഞതിനുശേഷമാണ് അത് ഹാങ്ങായിത്തുടങ്ങിയത് അപ്പോള് അപ്ഡേഷൻ എന്നു പറയുമ്പോള് പിന്നെ ഞാന് ഇടയ്ക്ക് ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അതൊന്നുമില്ല ഈ ഹാങ്ങിങ് മാത്രമേ ഉള്ളൂ ഹാങ്ങിങ് മാത്രമേ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ ആ അതെ അതെ ഹാങ്ങിങ്ങിന്റ പ്രശ്നം മാത്രമേ ഞാൻ കാണുന്നുള്ളു പിന്നെ വേറൊരു പ്രശ്നമെന്നു പറഞ്ഞുകഴിഞ്ഞാല് ഇത് നമ്മുടെ ഇതില്ലേ എമൗണ്ട് നമ്മള് ഓക്കെ അല്ല ആ അല്ല ഞാൻ ഞാന് ഈ എമൗണ്ടിനകത്തു നിങ്ങക്ക് ഇത് ഞാന് അതു തന്നുകഴിഞ്ഞാല് നിങ്ങള്ക്കു ശരിയാക്കിത്തരാൻ പറ്റുമോ നിങ്ങള് ടു ഇയേർസ് വാറണ്ടി തന്നിട്ടുണ്ട് ഞാൻ വാറണ്ടി കാർഡിന്റെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്

അല്ല അപ്പോള് ഞാനൊന്നു ചോദിക്കട്ടെ അപ്പോള് നമുക്ക് ഈ എമൗണ്ട് കാര്യങ്ങളും അത് ഞാന് ടു ഇയേർസ് വാറണ്ടി ചെയ്തിട്ടുണ്ട് എനിക്ക് ലാപ്ടോപ്പ് മാറ്റിക്കിട്ടുകയാണെങ്കില് ശരിയാക്കിത്തരുമോ എന്നുള്ളത് ആണോ ആ ആ ആ ഓക്കെ അപ്പോള് ഞാന് അല്ല ഞാന് ഇതും കൊണ്ട് എവിടെയാണു വരേണ്ടത് എവിടെ ഓക്കെ ഓക്കെ ഓക്കെ ഞാനപ്പോള് ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ സർ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ ഓക്കെ താങ്ക്യൂ